നമ്മൾ പത്രങ്ങൾ ടി വികളൊക്കെ നോക്കുകയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുടെ പ്രദേശത്ത് ജന്മഭൂമി പത്രം അതുപോലെ മലയാള മനോരമ മാതൃഭൂമി മാധ്യമം പിന്നെ അങ്ങനെയുള്ള പത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ സാധാരണ പിന്നെ പ്രചാര സമിതി പിന്നെ അതുപോലത്തെ പത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്

ടി വി ചാനലുകൾ നോക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ജനം ടി വി ഉണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് സൂര്യ ഫ്ലവേഴ്സ് മനോരമ മാതൃഭൂമി പിന്നെ നമ്മുടെ കളികൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലുകൾ അങ്ങനെ അങ്ങനെ നമുക്ക് പ്രാദേശികമായിട്ടുള്ള ഈ ഷോ ഷൊർണൂർ കേബിൾ വിഷൻ അങ്ങനെയുള്ള കുറേ ചാനലുകൾ നമുക്ക് നമ്മുടെ പ്രദേശത്ത് കാണാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള കാണാനും പറ്റുന്ന പല പ്രോഗ്രാമുകളും ഇപ്പോൾ ഫ്ലവേഴ്സ് ഓരോ ചാനലുകൾ നോക്കുകയാണെന്ന് പറയുമ്പോൾ ഓരോ പരിപാടിയായിരിക്കും കൂടുതൽ അതിൽ നമുക്ക് അവർ ഫോക്കസ് കൊടുക്കുന്നത് ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനലെന്ന് പറയുമ്പോൾ കോമഡിക്കാണ് കുറച്ചു കൂടുതൽ ഇപ്പോൾ ജനം ടി വി എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെയാണ് കൂടുലായിട്ടതിൽ വരുന്നത് മിക്കവാറും ന്യൂസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ എന്താ പറയുക സാംസ്കാരികമായിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഈ പിന്നെ ആ ഈ ഉത്സവാഘോഷങ്ങൾ അങ്ങനത്തെ പിന്നെ കേ എന്താ പറയുക നമ്മുടെ കേന്ദ്ര അതല്ലെങ്കിൽ ഭാരതത്തിൻ്റേതായിട്ടുള്ള കുറച്ചു കാര്യങ്ങൾ അങ്ങനെ നമുക്ക് സാംസ്കാരികവും നമ്മുടെ പാരമ്പര്യത്തിൻ്റെ അങ്ങനത്തെ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് മെയ്നായിട്ട് ന്യൂസ് ചാനലിൽ വരിക പിന്നെ ഈ സൂര്യ മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ അതിലെല്ലാ സമയത്തും മുഴുവൻ സമയത്തും അതിൽ സിനിമകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പി ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ അമ്മമാരെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഈ സാംസ്കാരികമായിട്ടുള്ള ഭക്തി അതുപോലത്തെ പരിപാടികളാണ് കൂടുതലായിട്ട് കാണുന്നത് പിന്നെ നമ്മുടെ മുതിർന്ന ആൾക്കാർ ന്യൂസ് ഇപ്പോൾ ന്യൂസ് ചാനലാണ് അവർക്ക് താത്പര്യം കൊച്ചു കുട്ടികൾക്കാണ് പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ ഈ കോമഡി അല്ലെങ്കിൽ എന്താ പറയുക ഈ കാർട്ടൂണ് പോലത്തെ ചാനലുകളാണ് കൂടുതലായിട്ട് അവർ കാണാറ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ് അപ്പം അവരുടേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ ചാനലുകളും അവർ കാണുകയും ചെയ്യും